ഇന്ന് മൃഗസംരക്ഷണ മേഖലയില് വളരെ അധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് പണ്ടത്തെ കാലത്തേ അപേക്ഷിച്ച് ഇന്ന് പുതിയ പുതിയ ഹൈബ്രിഡ് മൃഗങ്ങള് അല്ലെങ്കില് പുതിയ പുതിയ ജനിസിൽ പെട്ട മൃഗങ്ങള് ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ വളരെ അധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അന്യസംസ്ഥാങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തോട്ട് കടക്കുമ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തേക്ക് മൃഗങ്ങൾക്ക് കടന്ന് വരാൻ പറ്റൂ ഇത് വലിയ ഒരു പ്രശ്നമാണ് ഇന്ന് നമ്മുടെ നാട്ടില് ഇത് വലിയ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അവിടെയുള്ള മൃഗങ്ങളെ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് സെർട്ടിഫൈ ചെയ്തിട്ട് ഇങ്ങോട്ട് അയക്കുന്ന കാലഘട്ടത് നമ്മുടെ ഇവിടെയുള്ള നിയമം വലുതായാത് കൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് ആ മൃഗങ്ങൾക്ക് പരിശോധിച്ചിട്ട് സർട്ടഫിക്കറ്റ് തരുന്നില്ല മറ്റു സംസ്ഥാങ്ങളിൽ നിന്നും സെർട്ടിഫൈ ചെയ്ത മൃഗമാണെങ്കിൽ കൂടി നമ്മുടെ സംസ്ഥാനത്ത് എത്തുമ്പോൾ ഇത് പിന്നീടും ഒരു സെർട്ടിഫിക്കേഷൻ കഴിഞ്ഞേനെ അല്ലെങ്കിൽ പരിശോധന കഴിഞ്ഞിട്ട് വേണ്ടി മാറ്റി നിർത്തുകയാണ് ഈ പരിശോധന കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥനത്തിലേക്ക് ഈ മൃഗങ്ങളെ കടത്തി വിടുവൊള്ളൂ അതുപോലെ തന്നെ വേറെ ഒരു വലിയ ഒരു പ്രശ്നം എന്ത് എന്ന് വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വെരുന്ന മൃഗങ്ങൾക്ക് കുളമ്പ് രോഗം അതുപോലെ തന്നെയുള്ള പല അസുഖങ്ങളുണ്ട് അതൊന്നും ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് പരിശോധിച്ച് സാക്ഷ്യപെടുത്തുന്നില്ല പിന്നെ മറ്റു സംസ്ഥങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാത്തിലേക്ക് മൃഗങ്ങളെ കൊണ്ട് വരണങ്കിൽ നിയമ പരമായിട്ട് വലിയ ഒരു നൂലാമാലയുണ്ട് അവിടുത്തെ ഡോക്ടർമാര് സർട്ടിഫൈ ചെയ്ത് തരണം അത് പിന്നീട് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാര് സർട്ടിഫൈ ചെയ്ത് തരണം അങ്ങനെയുള്ള പല സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഇന്നത്തെ കാലത്ത് മൃഗങ്ങൾക്ക് വളരെ അധികം രോഗങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കണ്ട് വരുന്നുണ്ട് ഇതെല്ലാം ഒരു തരത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടീട്ട് യൂട്യൂബ് ചാനലായ കർഷകശ്രീ വളരെ അധികം സഹായിക്കുന്നുണ്ട് സാധാരണ മൃഗങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഹൈബ്രിഡ് മൃഗങ്ങൾക്ക് ഇന്ന് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചും ഈ യൂട്യൂബ് ചാനല് വളരെ വിശദമായിട്ട് അവര് അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലെ ഈ മൃഗങ്ങളെ കുറിച്ചും അവർ തന്നെ വിദേശി മൃഗങ്ങളെ കുറിച്ചും അവര് ആ യൂട്യൂബ് ചാനലിൽ വിവരിച്ച് കൊടുക്കുന്നുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളില് അറിവുനേടാൻ ഈ യൂട്യൂബ് ചാനൽ വളരെ അധികം ഉപകാരപ്പെടുന്നുണ്ട്